ഹലോ ഇത് എവർസ്റ്റാർ ട്രാവൽ ഏജൻസി അല്ലേ ആ ചേട്ടാ ഞാൻ ഇതുണ്ടല്ലോ വിളിക്കുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പം കോഴിക്കോടുന്നായിരുന്നു വിളിക്കുന്നത് എനിക്കിപ്പം എനിക്ക് എനിക്ക് കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വിളിക്കുന്നത് ആ അതെ അതെ ഞങ്ങള് ഒരു അഞ്ചുപേര് ഉണ്ടാകും ഫാമിലി ആയിട്ടാണ് പോകുന്നത് ആ അതെ അതെ അഞ്ചുപേര് ഉണ്ടാകും ഹാ ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്താച്ചാല് ഞങ്ങക്കൊരു ക്യാബ് ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഞങ്ങളിപ്പോൾ അഞ്ച് പേരുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് പോകാൻ പാകത്തിനുള്ള അഞ്ച് പേരുടെ സീറ്റിംഗ് ഉള്ള ഒരു ക്യാബ് ആയിരുന്നു വേണ്ടത് ആ ആ ഓക്കെ ഓക്കെ ഓക്കെ എത്രയാ അപ്പം റേറ്റ് വരിക ഓക്കെ പെർ ഡേ അയ്യായിരത്തി അഞ്ഞൂറ് അല്ലേ ഓ അഞ്ച് പേർക്ക് ഈ അയ്യായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ പെർ പെർസൺ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ എന്നാൽ ശരി അത്രയും വലുത് വേണ്ട കുറച്ച് ചെറുത് ഒരു നാല് പേര് പോകുന്ന രീതിക്കുള്ളതാണെങ്കിലും ഞങ്ങള് അഞ്ച് പേരല്ലേ പിള്ളേര് ചെറിയ മക്കളൊക്കെയാണ് അപ്പം അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാം അങ്ങനെയുള്ളതാവുമ്പോൾ എത്രയാണ് റേറ്റ് വരിക ഓ ഓ നാലായിരം ആണല്ലേ അപ്പോൾ ഒരു ആയിരത്തിൻ്റെ വ്യത്യാസമേ രണ്ടും തമ്മിലുള്ളൂ പിന്നെ കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകാൻ ആകുമ്പോൾ നമുക്ക് വലുത് യൂസ് ചെയ്യാം അല്ല ഇതിപ്പം ഒരു ദിവസത്തേക്ക് അയ്യായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പത്ത് ദിവസത്തേക്കാണ് വിചാരിക്കുന്നത് അപ്പം അത് നല്ല റേറ്റ് ആകും അപ്പം ഇത്രയും ദിവസത്തേക്ക് ആയതുകൊണ്ട് നിങ്ങള് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്തെങ്കിലും തരുമോ ഓക്കെ ഓക്കെ അങ്ങനെയല്ല ചേട്ടാ നമ്മളിപ്പം അങ്ങനെ ചോദിക്കുന്നയല്ല കാരണം എന്താച്ചാല് നമ്മൾക്കും അത്രക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനല്ലേ നമ്മള് നോക്കുക ഇതിപ്പോൾ പറയുമ്പോൾ കുറെ പേരെന്ന് പറയുമ്പോൾ ഇത് കുറച്ചു ബുദ്ധിമുട്ടാണ് അതാ ചോദിച്ചത് ആ ഓക്കെ ഞങ്ങള് ഒരു അഞ്ച് പേരാണ് കൊടൈക്കനാലിലേക്ക് ഒക്കെയാണ് നമുക്ക് പോകാൻ വേണ്ടി വിചാരിക്കുന്നത് ഒരു ടെൻ ഡേയ്സില് ട്രിപ്പാണ് ഞങ്ങള് ഇപ്പോൾ പോകുന്നതെല്ലാം ഞങ്ങൾക്ക് ഇഷ്ട്ടമാണെങ്കിൽ നിങ്ങള് എപ്പം ട്രിപ്പിന് വന്നാലും നിങ്ങളെ തന്നെ ഏൽപ്പിക്കത്തെയുള്ളൂ ഓക്കെ എന്നാൽ ശരി ചേട്ടാ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റു ഈ ആറുപേർക്ക് പോകാനുള്ള രീതിയിലുള്ള വണ്ടി പറഞ്ഞില്ലേ അയ്യായിരത്തിൻ്റെ നമുക്കത് ചെയ്യാം കാരണം നമ്മള് എല്ലാവരുടെയും കംഫർട്ട് നോക്കിയിട്ട് വേണല്ലോ പ്രത്യേകിച്ച് ഒരു ട്രിപ്പ് ആകുമ്പോൾ എല്ലാവരുടെയും കംഫർട്ടും എല്ലാം നോക്കിയിട്ട് വേണമല്ലോ നമ്മള് ചെയ്യാൻ ആ ഓക്കെ ഓക്കെ അയ്യായിരത്തി അഞ്ഞൂറ് അല്ലേ ഓക്കെ ചേട്ടാ എന്തായാലും വണ്ടിൻ്റെ കുറച്ച് പിക്ചർസും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തു തരാണെങ്കിൽ നന്നായിരുന്നു കാരണം അതെല്ലാം കൂടി നോക്കിയിട്ട് ഞാൻ കൺഫോം പറയാം കാരണം ഫാമിലിയിൽ എല്ലാവരെയും കാണിച്ച് കാരണം എല്ലാവരുടെയും ഒക്കെ എല്ലാവരുടെയും ഒരു ഓപ്ഷൻ നമ്മൾ നോക്കണല്ലോ അതെല്ലാം നോക്കിയിട്ട് ഞാൻ പറയാം ചേട്ടൻ എനിക്ക് ആ പിക് ഒന്ന് അയച്ചു തരുവായിരുന്നെങ്കിൽ ആ ഞാൻ അരമണിക്കൂർ കൊണ്ട് പറയാം ഡോണ്ട് വറി ഞാൻ അരമണിക്കൂർ കൊണ്ട് തന്നെ വരുന്ന കാര്യമൊക്കെ പറയാം ഞാൻ നെക്സ്റ്റ് മന്തായിരിക്കും വരിക നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് തന്നെ വരുന്നുണ്ട് ഞാൻ ഫാമിലി ആയിട്ടാണ് വരുന്നത് ഒരു അഞ്ച് പേര് ഉണ്ടാകും ഓക്കെ ഓക്കെ എന്നാ ഈ നമ്പറിലേക്ക് അയച്ചു ഞാൻ ഒരു ഹായ് അയക്കാം ചേട്ടൻ റിപ്ലൈ തന്നാൽ മതി ഓക്കെ ബൈ